ആ ഹലോ ഇത് നമ്മളെ ഇവിടത്തെ പുൽപ്പറ്റയിലത്തെ ചായക്കടക്കാരനല്ലേ ആ എനിക്ക് സൽക്കാരം ഉണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ്സ് വേണം അവിടെ നിന്ന് ആ നിങ്ങളെ ഷോപ്പ് നല്ല ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടത് ആ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് കടിക്കായിട്ട് ഏ പിന്നെ ഈനൊക്കെ എത്ര ഇതിന് ഇതിനൊക്കെ എത്ര ആയിരിക്കും എ ഒന്നിന് പത്താണോ പിന്നെ അവിടെ മുട്ട ബജിയൊക്കെ ഉണ്ടാവുമോ ആ പിന്നെ ഏതൊക്കെ തരം ചായകളൊക്കൊ ഉണ്ട്

ഞങ്ങൾ ഒരു ഒരു ഒരു നൂറ് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും കൂടായിറ്റ് കട്ലേറ്റ് ഇല്ലേ ആ എന്നാ കട്ലേറ്റും പിന്നെ സമൂസയും പിന്നെ മുട്ട ബജിയും ബ്രഡ്ഡ് പൊരിച്ചതും ഒക്കെപ്പാടെ കേട്ടോ ആട് കട്ലേറ്റ് മതി അതാണ് രസം ആ അപ്പോൾ നൂറ് ആൾക്കാർക്ക് എത്ര ആയിരിക്കും ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പതല്ലേ

ആ സോറി സോറി സോറി ഞാൻ കണക്കിൽ ഇച്ചിരി പിശകാണ് അപ്പോൾ അത് കൊണ്ട് എല്ലാവർക്കും കൂടി ആട് നിങ്ങൾ പറഞ്ഞല്ലോ ആ അതും പിന്നെ ചായ ഏതാണ് ആ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ആക്കിക്കോ അതാണ് രസം എന്നാൽ ബൂസ്റ്റ് ആ ഞാൻ വൈകുന്നേരമുണ്ട് പുൽപ്പറ്റ അല്ലേ ആ എന്നാൽ ഓക്കെ